കഴിഞ്ഞ കുറച്ചു പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ കുറെ പുതിയ ജോലികളും റോളുകളും ഉയർന്നിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളാണ് യൂട്യൂബർ കണ്ടൻറ്റ് ക്രിയേറ്ററ് സഞ്ചാരി ഹാസ്യ നടൻ ഇങ്ങനെയുള്ളതെല്ലാം ഇന്ത്യയില് ചെറുപ്പക്കാരിൽ ഇത്തരത്തിലുള്ള ജീവിതങ്ങളും ഇതുപോലുള്ള ജീവിതശൈലികളും റോളുകളും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള ജോലികളും അങ്ങനെയുള്ള തരത്തിലുള്ള റോളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ് അതെല്ലാം അവര് ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതുമറിയില്ല എന്നാലും ഇത്തരത്തിലുള്ള പുതിയ തലമുറയും പുതിയ ആൾക്കാരും ചെറുപ്പക്കാരും ഇത്തരത്തിലുള്ള ജോലികളോട് കുറേ കൂറു കാണിക്കുന്നുണ്ട് അതായത് ഈ കണ്ടൻറ്റ് ക്രിയേറ്റർ സഞ്ചാരി ഹാസ്യ നടൻ എ എന്നൊക്കെ പറയുന്ന ജോലികളൊക്കെ ഇപ്പോൾ പുതുതായി ഉയർന്നു വന്നതാണ് പണ്ട് നമ്മള് കാണുമ്പോഴെല്ലാം ഡോക്ടർമാര് എൻജിനീയർമാര് സൈൻറ്റിസ്റ്റുമാര് ടീച്ചറ് ഇതൊക്കെയാരുന്നു സ്ഥിരം കണ്ടിരുന്ന ജോലികള് ഇപ്പഴും ആൾക്കാര് കുറെ വിഭാഗം ആൾക്കാര് അതിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും കുറെ ആൾക്കാർക്കും താൽപര്യം പുതിയ പുതിയ മേഖലകളിലേക്ക് വരാനാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന കുറേ മേഖലകളും കുറെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളാണ് നമ്മള് കാണുന്നത് നമ്മള് ജോലി സാധ്യതകൾ ഇല്ല ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മള് പലപ്പോഴും അറിയാത്ത കുറെ മേഖലകളും കുറെ എന്താ പറയുക പഠിക്കാനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളെ പറ്റിയും നമ്മൾ അറിയുന്നില്ല അതൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നമ്മള് കുറെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ മനസ്സിലായാൽ തന്നെ ഒരുവിധം നല്ല ഭാഗം ആൾക്കാർക്കും ജോലി കിട്ടും അവർക്ക് പഠിക്കാനുള്ള അവസരവും ഉണ്ടാകും നമുക്കറിയാം കുറെ ആൾക്കാര് തൊഴിലില്ലായ്മ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് ഈയൊരു തലമുറയില് കുറെ ആൾക്കാര് ചെറുപ്പക്കാരും എന്നുവേണ്ട കുറെ ആൾക്കാര് ജോ തൊഴിലില്ലായ്മ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് കുടുംബം പോറ്റാൻ തന്നെ കുടുംബം നോക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടും പ്രത്യേകിച്ചൊരു കുടുംബത്തില് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാകുമ്പോൾ ഭാര്യക്ക് ജോലി ഉണ്ട് ഭർത്താവിന് ജോലിയുണ്ടെങ്കിൽ ഏകദേശം ആ കുടുംബം നോക്കാനുള്ള വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരാള് ഭാര്യക്കോ ഭർത്താവിനോ ഒരു കുറച്ചു മോശമല്ലാത്ത ജോലിയാണുള്ളെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ കുടുംബം തള്ളി നീക്കാം പക്ഷേ ഒരു കുടുംബത്തില് ഒരു ഭാര്യക്കും ഭർത്താവിനും രണ്ടാൾക്കും തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടാൾക്കും ജോലി ഇല്ല എന്നുണ്ടെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരനുഭവിക്കുന്നത് അവർക്കൊരു കുടുംബം വരുമ്പോൾ അല്ലെങ്കിൽ രണ്ടു കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരുടെ പഠിപ്പ് അവരുടെ ചെലവ് അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം ഇതിനൊക്കെ കൊടുക്കണ്ട പൈസ അവര് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കണ്ടെത്തുന്നത് അപ്പം ഇത്തരത്തിലുള്ള ജോലികള് വളരെ സഹായകരമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അധികം ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് യൂട്യൂബ്യും അതിൻ്റെ പ്രാധാന്യതയും അതിന് എത്രത്തോളം സ്വികാര്യത കിട്ടുന്നുണ്ട് എന്നുള്ളതും അത് എത്രത്തോളം ആൾക്കാര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും പൊതുവായിട്ട് ആൾക്കാര് അറിഞ്ഞു തുടങ്ങിയത് അങ്ങനെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ട്ടമാണ് ആൾക്കാര് അത് നിത്യേന കാണുന്നുണ്ട് എന്നറിയുമ്പോൾ അവര് കൂടുതലും അതിലോട്ട് പോവും അവര് കൂടുതലും അതിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരതില് ഒരു ജോലി മാർഗം കണ്ടെത്താൻ നോക്കും അങ്ങനെ യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന എത്രയോ പേർ നമ്മുടെ ചുറ്റിലുമുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റിങ് ഇതൊക്കെ വളരെ വ്യത്യസ്ത മായിട്ടുള്ള ജോലികളാണ് അതിൽ നിന്നും നല്ല വരുമാനം നേടുന്ന കേരളത്തിൽ തന്നെ കുറെ ആൾക്കാരുണ്ട് ഇന്ത്യയിലും ഉണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം കലാപരമായി പല ജോലികൾക്കും പോകുന്ന ആൾക്കാരുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ ഓരോ ചാനലു ചാനലുകളും അക്കൗണ്ടും തുടങ്ങിയിട്ട് അതിനകത്ത് അവരുടെ പാട്ടുകള് ഡാൻസുകള് അല്ലേൽ അവരുടെ കഴിവുകള് അവർക്ക് വല്ല ഇൻസ്ട്രുമെൻസ് വായിക്കാൻ അറിയുമെങ്കിൽ അതൊക്കെ പ്രദർശിപ്പിക്കുമ്പോഴും അവർക്ക് അതിനത്ത് നിന്നും ആൾക്കാര് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് അത് വലിയൊരു റീച്ചാണ് കിട്ടുന്നത് അവര് പല ആൾക്കാരുടെ അടുത്തും അവരുടെ വീഡിയോകള് ഷെയർ ആകും അങ്ങനെ കുറെ ആൾക്കാര് കാണുമ്പോൾ അവർക്ക് കുറെ വ്യൂസ് കൂടുന്നു അങ്ങനെ അവർക്ക് അതുവഴി ഒരു തൊഴിലവസരമാണ് കിട്ടുന്നത് അവര് അതിൽ നിന്നും സമ്പാദിക്കുന്നുമുണ്ട് അത് പോലെയാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഇപ്പോൾ വളരെ സജീവമായിട്ട് നില നിന്ന് പോകുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെയുള്ള സോഷ്യൽ ഫ്ലാറ്റ്ഫോമുകളിലൂടെ അവരുടെ കഴിവുകളും അവരുടെ ചില വീട്ടമ്മമാരുടെ കുക്കറി ഷോകള് അവര് വെറും വീട്ടമ്മമാരായിരിക്കും അവര് വേറൊരു ജോലിക്കും പോകുന്നുണ്ടാവില്ല പക്ഷേ അവര് വീട്ടിൽ നിന്നും സ്വന്തമായി എങ്ങനെ ജോലി ചെയ്യാം പൈസ നേടാം എന്നതിനെക്കുറിച്ചാണ് അവരാലോചിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരൊരു യൂട്യൂബ് ചാനല് തുടങ്ങും അല്ലെൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങും ഇൻസ്റ്റഗ്രാം ഐഡി തുടങ്ങും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അതിനകത്ത് അവരുടെ പാചക വീഡിയോകള് അവരുടെ നിത്യേന അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പലകാര്യങ്ങള് അവരെ എങ്ങനെയാണ് അവരുടെ ലൈഫ് പോകുന്നത് എന്നൊക്കെയുള്ള വീഡിയോകളെടുക്കുന്നു ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയകളിലും ഫേസ്ബുക്കിലും ഒക്കെ പങ്കുവയ്ക്കുന്നു അതുവഴി കുറേ ആൾക്കാരത് കാണുന്നു റീച്ച് കിട്ടുന്നു അങ്ങനെ അവർക്കൊരു തൊഴിൽ അവസരം അല്ലേൽ അവര് അതിൽ നിന്ന് സമ്പാദിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വീട്ടിൽ വീട്ടമ്മമാരായി ഇരിക്കുന്ന ജോലി ചെയ്യാത്ത എല്ലാവർക്കും ഇപ്പോൾ പുതിയതായിട്ട് പല ജോലികളും കിട്ടുന്നുണ്ട് അതുപോലെയാണ് സഞ്ചാരി ട്രാവൽ ചെയ്യുന്നവർക്കറിയാം അവരതിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും അവരത് എങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും ഒക്കെ സൂക്ഷിക്കുന്നുണ്ടെന്ന് അതൊക്കെ നമ്മുടെ കയ്യില് മെമ്മറീസ് ആയിട്ട് അല്ലെങ്കിൽ ഓർമ്മകൾ ആയിട്ട് നിൽക്കാതെ അവരെ എന്തു ചെയ്യുന്നു ഓരോ പേജും അക്കൗണ്ടുകളും തുടങ്ങി അത് അതിനത്ത് പോസ്റ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അങ്ങനെ മറ്റുള്ളവർക്കും ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ് അല്ലെലൊരു താല്പര്യം ഉണ്ടാവുകയാണ് അങ്ങനെ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പം അവരത് അവരുടെ അക്കൗണ്ടും സജീവമായി പോയ്ക്കൊണ്ടിരിക്കും അങ്ങനെ അവർക്ക് അതിൽ നിന്നൊരു സമ്പാദ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് വളരെയധികം പഴയ ജോലികളിൽ നിന്നും അല്ലെങ്കിൽ സ്ഥിരം കണ്ടുവരുന്ന ജോലികളിൽ നിന്ന് മാറി ഇത്തരത്തിലുള്ള ജോലികളിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്